ആ ഹലോ ടീച്ചറെ കേൾക്കാമോ പറഞ്ഞോ ടീച്ചറെ ഇത്രയും കാര്യങ്ങൾ രാവിലെ വന്ന് ടോയിലറ്റ് എല്ലാം ഒന്ന് തുറന്നിട്ടു ഫയല് പിന്നെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സിസ്റ്ററെ നമുക്ക് ടീച്ചറെ ഇത് കിട്ടാനുള്ള ഫയല് ഫയലിനകത്ത് കളക്ട് ചെയ്യാനുള്ള സാധനങ്ങൾ എല്ലാം ഓരോ ക്ലാസ്സ് ടീച്ചറില്ലെ ഞാൻ തന്നെ പോകണോ ഓരോ ക്ലാസ് ടീച്ചർമാരുടെ കയ്യിൽ കൊടുത്തുവിട്ടാൽ തന്നെ ഫിൽ ചെയ്ത് വെച്ചാലോ എന്താണ് ചെയ്യുന്നത് ടോയ്ലറ്റ് ടീച്ചറെ അത് രാവിലെ പിള്ളേരെ എല്ലാം കൂടെ ആവില്ല പിള്ളേരോട് നമുക്ക് ചെയ്തിട്ട് പിള്ളേരാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ക്ലീനിങ്ങിനും വൈകുന്നേരം ഞാൻ പോയി പൂട്ടുന്ന അങ്ങനെ ഉള്ളതേ ചെയ്യുന്നുള്ളു അപ്പം അതൊന്നും കുഴപ്പം ഇല്ല പിന്നെ നമ്മുടെ ആ താഴത്തെ ക്ലീൻ ചെയ്ത ലാബിൻ്റെ കാര്യം എങ്ങനെയാണ് സിസ്റ്ററെ വേറെ ആരെയേലും വിളിക്കണോ പി ടി എ ക്കാരിൽ ആരേലും വിളിക്കണോ അതോ നമ്മള് തന്നെ എല്ലാവരും കൂടെ ക്ലീൻ ചെയ്യുകയാണോ ആ അപ്പം അല്ലെങ്കിൽ നമുക്ക് ഉച്ച കഴിഞ്ഞൊരു മൂന്നുമണി സമയം വെച്ചാലോ രണ്ട് മണി അങ്ങനെ അവരുടെ അവർക്ക് നമുക്ക് ഒരു മെസേജ് ഇട്ടിട്ടേ ഓരോരുത്തർക്കും അറിയിക്കാൻ താത്പര്യമുള്ള സമയം ഒന്ന് ചോദിച്ചാലോ ആ അവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഏത് സ്ഥലത്തേക്കാണ് മ്മ് നമ്മൾ അങ്ങോട്ട് മേടിച്ച് വെക്കാൻ വെച്ചേക്കുന്ന സാധനങ്ങളല്ല പുതിയതായിട്ട് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ട് വെക്കണോ അതോ നാളെ വന്നിട്ട് നമുക്ക് ടീച്ചർമാർ എല്ലാവരും കൂടിയിട്ട് സ്ഥലം നിശ്ചയിച്ചിട്ട് എടുത്ത് വെച്ചാൽ മതിയോ എന്താണ് ചെയ്യുന്നത് ആ പുതിയ നമുക്ക് ഒട്ടിക്കുന്ന സാധനങ്ങളെല്ലാം ചെയ്ത് വൈകുന്നേരം തന്നെ എല്ലാ ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചേക്കട്ടെ ഞാൻ ആ ഈ ഗാർഡനിൻ്റെ കാര്യങ്ങളെല്ലാം എന്താണ് ചെയ്യേണ്ടത് സിസ്റ്ററെ അതാം ഒരാളെ വിളിച്ച് നമുക്ക് നിറച്ച് അതിനെക്കുറിച്ച് എന്താണ് ചെയ്യേണ്ടത് അത് അങ്ങനെ ചെയ്യാം അല്ലേ ആ പിന്നെ ഓ അതോരോ ക്ലാസുകാർക്ക് ഓരോ ഏരിയ തിരിച്ചങ്ങ് ഡ്യൂട്ടി കൊടുത്താലോ സിസ്റ്ററെ അതാകുമ്പോൾ നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് നോക്കിയാൽ പോരെ ആ പിന്നേ നനയും പരിപാടിയും എല്ലാം പിള്ളേരെ അങ്ങ് ഏൽപ്പിച്ചാലോ സിസ്റ്ററെ പക്ഷെ അവരില്ലാത്ത ദിവസം ഞാൻ വന്ന് ശനിയാഴ്ച നനയ്ക്കാം ആ അങ്ങനെ പിന്നേ ആ അതെല്ലാം ചെയ്തോളാം സിസ്റ്ററെ ആ അതെല്ലാം സമയത്ത് ഞാൻ ചെയ്തോളാം പിന്നെ സിസ്റ്റർ വന്നിട്ട് ഓഫീസിൽ പോകുന്നുണ്ടോ ഇന്ന് ടീച്ചർ ഉണ്ട് ആ ഫയൽ എല്ലാം എടുത്ത് വെക്കണോ സിസ്റ്റർ കൊണ്ടുവരുന്നത് സിസ്റ്റർ ടീച്ചർ വന്നിട്ട് എല്ലാം എടുത്ത് പെറുക്കി വെക്കുവാണോ

പ്രിന്റ് എടുത്ത് വെക്കേണ്ട വല്ല കാര്യങ്ങളും ഉണ്ടോ മെയിലെല്ലാം ടീച്ചർ ചെക്ക് ചെയ്യുന്നുണ്ടല്ലൊ അപ്പോൾ വേറെ നോക്കണ്ട കാര്യം ഒന്നും ഇല്ലല്ലൊ ഈ അതെല്ലാം ശരിയാകുമല്ലൊ പിന്നെ പിള്ളേരുടെ എണ്ണം കൊടുക്കാനുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്താ ചെയ്യുന്നത് ടീച്ചറെ ആ ഓരോ ക്ലാസ്സിലേ ആ ഗെലാ ടോട്ടലും ബോള് ബോയ് ഗേള് തിരിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ അതോ ക്ലാസ് ടീച്ചർമാരോട് പറഞ്ഞ് നമ്മുടെ ഇപ്പം നിലവിൽ അറ്റൻറ്റൻസിലെ കണക്ക് എടുത്തിട്ട് അങ്ങനെ ആ ഇന്നാളെടുത്ത ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു ടീച്ചറിൻ്റെ കയ്യിൽ അതൊന്ന് നോക്കി വേണേൽ അതൊന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് എഴുതി ടീച്ചറിൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തു ടേബിളേലൊന്ന് എടുത്ത് വെച്ചേക്കാം ഞാൻ

ആ മതി പിന്നെ നമ്മൾ ആ ഫർസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് കുറച്ച് സാധനങ്ങളും കൂടെ ടീച്ചർ മേടിച്ചുകൊണ്ട് വരാനുണ്ടേ അതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളെ ഇരിപ്പുള്ളൂ നോക്കിയപ്പോഴ് ആ അതെല്ലാം കളഞ്ഞിട്ട് കിറ്റിൻ്റെ ആ ഇൻചാർജുള്ള ടീച്ചറിനോടോ ഒന്ന് ചോദിച്ചായിരുന്നെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് നമുക്ക് എടുക്കാമായിരുന്നല്ലോ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് അതാ നമുക്ക് അത്യാവശ്യായിട്ടൊന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ

ആ ബാക്കിയെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഫ്രണ്ടിൽ കിടന്ന ഓസിൻ്റെ ജോയിൻറ്റ് കുറച്ച് അതൊന്ന് ശരിയാക്കാനുണ്ട് സിസ്റ്റർ ആരേയെലും ഒന്ന് വിളിക്കുവായിരുന്നെങ്കിൽ അത് വെള്ളം പോകുന്നുണ്ട് നമ്മുടെ ഗാർഡൻ നനയ്ക്കുമ്പോഴത്തേക്ക് മ്മ് അല്ലെൽ നമ്മുടെ മുകളിലത്തെ ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത് ഒരു ചേട്ടനെ വിളിച്ചായിരുന്നു ചിലപ്പം എന്തേലും ജോയിൻറ്റൊക്കെ വേണമെങ്കിൽ അതൊന്ന് മേടിച്ച് വെച്ചേക്കട്ടെ സിസ്റ്ററെ എന്നാൽ വേണ്ട സാധങ്ങളെല്ലാ കൂടെ ഒന്ന് ആ ഓസും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് ശെരിയാക്കി പെറുക്കി വെക്കുവാണെങ്കിൽ ആ പിന്നെ ആ സ്മാർട്ട് ക്ലാസ്റൂം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങുകയായിരുന്നെങ്കിൽ നമുക്ക് തുടയ്ക്കാനുള്ള സാധനങ്ങൾ എല്ലാം ഒന്ന് പുറത്ത് പോകുമ്പോൾ ആവശ്യമുള്ളതെല്ലാം ഒന്ന് മേടിച്ച് വെച്ചേക്കട്ടെ ക്ലീനിംഗിന് ആവശ്യമുള്ള സാധനം എല്ലാം കൂടെ ലിസ്റ്റ് എടുത്ത് നമ്മുടെ ടോയ്ലെറ്റ് ആ ഹലോ ഞങ്ങൾ പിന്നേ പച്ചക്കറി തോട്ടം എല്ലാ ദിവസവും നനയ്ക്കാറുണ്ട് അതിനകത്ത് വേണേൽ ഒരാളേയും കൂടെ നമുക്ക് സഹായത്തിന് കൂട്ടാം ചെയ്യാനേ പുതിയതായിട്ട് അടുത്ത സെക്ഷൻ വേണേൽ നമുക്ക് ഒന്നും കൂടെ കൃഷി ഇറക്കത്തില്ലേ സിസ് ടീച്ചറെ

ആ അവർ നമുക്ക് വന്നെല്ലാം ചെയ്ത് തരുന്നതേ ഉള്ളു അപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടെ നമുക്ക് എന്നാൽ ചെയ്തേക്കാം

ആ എന്നാൽ ആയിക്കോട്ടെ എല്ലാം റെഡി ആക്കി വെച്ചേക്കാം സിസ്റ്ററെ ഓ ശരി ടീച്ചറെ ശരി ഓക്കെ